ഹലോ ക്യാബ് ഏജൻസി അല്ലെ എനിക്കൊരു ക്യാബ് ബുക്ക് ചെയ്യാൻ വേണ്ടിയായിരുന്നു നമുക്ക് കോയമ്പത്തൂരിലേക്ക് പോകണം കോഴിക്കോടിൽ നിന്ന് നാളെ നമുക്ക് രാവിലെത്തന്നെ നമുക്ക് ഇവിടുന്ന് പുറപ്പെടണം അപ്പോൾ അതിനു പറ്റിയുള്ള ഡ്രൈവറ് കാര്യങ്ങളൊക്കെ എത്തുമൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു കറക്ട് ടൈം നമുക്ക് ഏഴ് മണി ആകുമ്പോളേക്കും ഇവിടുന്ന് പുറപ്പെടണം ഏഴ് മണിയാകുമ്പോളേക്കും കറക്ടായിട്ട് ഇതൊന്ന് അറിയാൻ വേണ്ടിയാണ് ക്യാഷ് കാര്യങ്ങളൊക്കെ നമ്മള് നിങ്ങൾക്ക് അഡ്വാൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മള് ക്യാബ് എജൻസിയിലേക്ക് അയച്ചു തരാം ബാക്കിയുള്ളത് നമ്മള് നമ്മളുടെ ട്രിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ നമ്മള് ബാക്കിയുള്ളത് ഡ്രൈവറുടെ കയ്യിലോ അല്ലെൽ നിങ്ങളുടെ എജൻസിയിലേക്കോ അങ്ങനെ നമ്മള് അയച്ചു തരാം എപ്പോഴെന്ന് വച്ചിട്ടുണ്ടെങ്കില് അയച്ചാല് നമ്മള് കറക്റ്റായിട്ട് നമുക്ക് നമ്മളൊരു ഇൻ്റെർവ്യൂവിന് പോകുന്നതാണ് കോയമ്പത്തൂര് അപ്പോൾ കറക്ട് ടൈമിന് എത്തണം അതുകൊണ്ട് കറക്ട് ടൈമിന് നമ്മളെ കൊണ്ടുപോകണം അതാണ് മെയിൻ അപ്പോൾ നമ്മള് കാശിൻ്റെ ഒന്നും പ്രശ്നല്ല കറക്ട് ടൈമിന് കൊണ്ടുപോകണം കറക്ട് ടൈമിന് നമ്മളവിടെ ഇൻ്റെർവ്യൂവിന് എത്തണം അപ്പോൾ ടൈം കുറച്ച് ഏഴ് മണി എന്നുള്ളത് നമ്മള് ആറ് മണിക്ക് വേണമെങ്കിലും പോകാം അപ്പോൾ റെഡി ആണല്ലോ അല്ലെ അപ്പോൾ നാളെയൊന്ന് രാവിലെയൊന്ന് ഒരു ആറ് മണിയൊക്കെ ആകുമ്പോളെത്തേക്കും ചേട്ടൻ ഇങ്ങോട്ടേക്ക് എത്തുള്ളു നമ്മള് അപ്പോളെത്തേക്കും ഒരുങ്ങി നിൽക്കാം കെട്ടോ ലൊക്കേഷൻ ഞങ്ങള് വാട്സ്ആപ് ചെയ്യാം ഓക്കേ താങ്ക്യൂ